ഹലോ അതെ ഞാനിവിടെ ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പം ആ ഫങ്ങ്ഷന് വേണ്ടി നമുക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ അവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ട് നമുക്ക് സ്നാക്സായിട്ട് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്തൊക്കെ ഉണ്ട് ഓക്കെ

ആ എഗ്ഗ് പഫ്സ് മാത്രം എഗ്ഗ് പഫ്സ് മതി നമുക്ക് ചായയും ഇരുന്നൂറ് പേർക്ക് ഉള്ള എഗ്ഗ് പഫ്സും ഇരുന്നൂറ് പേർക്ക് ഉള്ള ചായയാണ് നമുക്ക് ഇപ്പം വേണ്ടത് ആ അത് നമുക്ക് ഒരു ഒരാഴ്ച ആ നമുക്ക് അടുത്ത തിങ്കളാഴ്ച്ചത്തേക്കാണ് അതിന് ആവശ്യം വരുന്നത് അപ്പം നിങ്ങൾ അത് എങ്ങനെയാണ് നമുക്ക് ഇത് ഇത് എത്തിച്ച് തരുന്നത് തരാൻ പറ്റുന്നത്

ആ ആ ഒരാൾക്ക് ഒരു അൻപത് രൂപ അപ്പം ഇരുന്നൂറ്പേർക്ക് നമുക്കത് പൈസയൊക്കെ പൈസയൊക്ക നമ്മളിത് എങ്ങനെയാണ് കാശിന്റെയൊക്കെ കാര്യം നമ്മളിത് ഇപ്പം തന്നെ നമുക്ക് പൈസ തരണോ അതോ ഇത് നമുക്ക് ഫുഡ് ഇത് ഫങ്ങ്ഷൻ കഴിഞ്ഞിട്ട് തന്നാൽ മതിയോ ഹലോ ഹലോ ഹലോ ഹലോ

ഹലോ